എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ഒൻപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് ഏഴ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആറ് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ്